പരമ്പരാഗത കളികളിൽ നിന്ന് കുറെ കളികളുണ്ട് ഇപ്പോൾ കുറെ നോക്കാണെങ്കിൽ ഓണക്കളികൾ വിഷുക്കളികൾ ഇതൊക്കെ നമ്മൾ പണ്ടത്തെ കളിന്നൊക്കെ നമ്മൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് ആ കളികളൊക്കെ നോക്കുമ്പളാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഓർമ്മ വരുന്നത് ഓരോ സംസ്കാരങ്ങൾ നമുക്ക് ഓർമ്മ വരുന്ന ഓരോ കളികൾ നോക്കെയാണേൽ ആണേ ഇപ്പോൾ സ്കൂളിൽ നോക്കയാണേൽ കുളം കര ഓട്ടമത്സരം ഒക്കെ പണ്ടത്തേൽ നിന്ന് ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് അതൊക്കെയാണ് അതിൻ്റെ ഒരു രസം പിന്നെ കുട്ടീം കോലും ഒക്കെ നോക്കണെങ്കിൽ ഇപ്പം അതൊക്കെ പണ്ടത്തെ കളിയാണ് ഇപ്പോഴത്തെ കുട്ടികളും അതൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട് അതിനൊക്കെ കാരണം അതോ ഇതൊക്കെ തന്നാണ് കാരണം പണ്ടത്തെ കളികൾ നമ്മൾ കൊണ്ടു നടക്കുന്നത് ഓണം നോക്കണം ഓണകളികൾ ഓണമെന്ന് കേൾക്കുമ്പം തന്നെ നമുക്ക് എന്താണ് വടംവലി പൂവിട അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്ന ക അതൊക്കെയാണ് പണ്ടത്തെ കളികളാണ് വടംവലി അതൊക്കെ അത് നമ്മൾ ഇപ്പളും കൊണ്ടു നടക്കുന്നുണ്ട് വിഷു നോക്കാണെങ്കിൽ പടക്കം പൊട്ടിക്കൽ അതക്കെയാണ് പടക്കം പൊട്ടിക്കൽ പണ്ടത്തതേനു അത് നമ്മൾ നിർത്താതെ ഇപ്പളും നമ്മൾ അതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്